മതപരമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പാട്ടുകള് ഉണ്ട് അത് ദേവാലയത്തിലായിരിക്കുമ്പോള് വിശുദ്ധ കുര്ബാന അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകള്

ഉള്ള കാര്യങ്ങളൊക്കെ മതപരമായ ചടങ്ങുകളില് പ്രത്യേകം നടത്തപ്പെടുന്നതാണ് അതുപോലെതന്നെ മതപരമായ പല ഒരുപാട് ഒരുപാട് ചടങ്ങുകള് ഉണ്ട് അവയ്ക്കൊക്കെ പ്രത്യേകമായ പാട്ടുകളും പ്രത്യേകമായ പ്രാര്ത്ഥനകളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതാ ആ ഒരു ചടങ്ങില് മാത്രമേ കൂടുതലായിട്ടും ആ പാടാറുള്ളൂ പൊതുവെ വളരെ ശാന്തമായ രീതിയില് തന്നെയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകള് നടത്തുന്നതും പാട്ടുകള് പാടുന്നതും എല്ലാം അത് പള്ളിയില് പോകുന്നവരാണെങ്കില് ആ പള്ളിയും അതിന്റെ ചുറ്റുപാടിലും അതിന്റെ സമീപ സ്ഥലങ്ങളിലും മാത്രം ഈ കാര്യങ്ങള് ചെയ്യുന്നു ക്കിപ്പോള് ക്ഷേത്രങ്ങളില് പോകുന്നവര് അവിടെയും ഇതുപോലെയുള്ള കാര്യങ്ങള് ചെയ്യാറുണ്ട് അതും ആ ക്ഷേത്രത്തിന്റെ സമീപത്തും അതിന്റെ ഉള്ളിലും ഒക്കെയായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ മുസ്ലീം പള്ളികളിലും അവരുടെ മതപരമായ കാര്യങ്ങള് അവര് നടത്തുന്നു

എല്ലാ മതസ്ഥരും അവരവരുടെ ചട്ടക്കൂടുകളില് ഒതുങ്ങി നിന്നുതന്നെയാണ് ഇവിടെ കാര്യങ്ങള് ചെയ്യുന്നത് ആരും ആര്ക്കും

ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലും അത് മറ്റുള്ളവര്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലും മതപരമായ കാര്യങ്ങള് സംഘടിപ്പിക്കുന്നു പൊതുവേ മതപരമായ കാര്യങ്ങളില് സമാധാനപരമായ കാര്യങ്ങളാണ് സമാധാനപരമായി ആണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുപോരുന്നത് ഒരു മതസ്ഥര് മറ്റു മതസ്ഥരെ കുറ്റം പറയുകയോ അവരുടെ പാട്ടുകളെക്കുറിച്ച് കളിയാക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ ഇവിടെയില്ല എല്ലാവരും അവനവന്റെ കാര്യങ്ങള് നോക്കി ആ ഒരു സമീപനത്തില് മുന്നോട്ടുപോകുന്നു